നമ്മുടെ സ്ത്രീകൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല സമൂഹത്തിൽ ഇപ്പോൾ കുറച്ചുംകൂടെ പങ്കാളിത്തം നമുക്ക് കാണാൻ പറ്റും എല്ലാമേഖലയിലും സ്ത്രീകളുടെ ഒരു എന്താ പറയുക കടന്നുകയറ്റം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ചു സ്പേസ് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തി നമ്മളുടെ എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ഒരു പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പല രീതിയിലും നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം പണ്ടത്തെ കാലത്തെ കാട്ടിലും വിദ്യാഭ്യാസം രീതികൾക്ക് എല്ലാ മേഖലകളിലും ഉള്ള സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകണം എന്നുള്ള ഒരു ഇത് അവരുടെ അച്ഛനമ്മമാര് കാണിക്കുന്നുണ്ട് പിന്നെ ജോലിയിൽ ആയാലും ജോലിയിൽ നോക്കുക എന്ന് പറയുമ്പോൾ ആ ഇപ്പോൾ പല മേഖലകളിലും പണ്ട് കാണാത്ത പല മേഖലകളിലേക്കും സ്ത്രീകൾ ഇപ്പോൾ കടന്നുവരുന്നുണ്ട് ഇപ്പോൾ അവർക്ക് വേണ്ടി ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ എന്താ പറയുക എയർഹോസ്റ്റസ് എയർഹോസ്റ്റസ് അല്ല പ പൈലറ്റ് അങ്ങനെ നമ്മൾ ഇപ്പോൾ പണ്ട് ഒരു നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അങ്ങനത്തെ കോ പറഞ്ഞിരുന്ന പല മേഖലകളിലും സയന്റിസ്റ്റ് അങ്ങനത്തെ പല ഉന്നതമായ മേഖലകളിലും നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട് എന്നാലും ചില സമയങ്ങളില് ഇപ്പൊൾ അവരെ സുരക്ഷിതരല്ല എന്താ എന്നുവച്ച് കഴിഞ്ഞാൽ സുരക്ഷിതരല്ല എന്ന് പറയാൻ അവർക്ക് ചില ആളുകൾ ഇപ്പോഴുമുണ്ട് ഇപ്പോൾ സമൂഹമാകുമ്പോ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ അതിലുണ്ടാവ്ണ അവർക്ക് ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അവർ അത് ഉൾക്കൊണ്ട് നമ്മുടെ രീതിയില് ജീവിക്കേണ്ട കാര്യങ്ങൾ എല്ലാ സ എല്ലാ ആൾക്കാരും നമുക്ക് സമൂഹത്തിൽ ഒരേപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അവരുടെ അതുകൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാരണങ്ങളും നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവരുടെ കുത്തുവാക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്താ പറയുക നേരിടേണ്ടി വരുന്നുണ്ട് പിന്നെ പൊതുവായിട്ട് നോക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം അവർക്ക് നല്ല നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പോൾ നൽകി കൊണ്ടിരിക്കുന്നുണ്ട്